എനിക്കൊര് ഫർണിച്ചർ ഷോപ്പിങ്ങ് അറിയാനായിരുന്നു എന്താണ് അവിടെ ഉള്ളത്

എനിക്ക് വേണ്ടത് കട്ടിലും പിന്നെ ഒരു സോഫ മോഡലിൽ ഊഞ്ഞാൽ ആടുകയില്ലേ ആ മോഡലിൽ ഒക്കെ വേണം ബഡ്ജറ്റ് ഞാൻ പറഞ്ഞാൽ ഒരു ലക്ഷമാണ് എങ്ങനെ ഫ്രീ യോ മനസിലായില്ല ഓ റേറ്റ് വിഷയം അല്ല റേറ്റ് നമുക്ക് എത്ര ആയാലും വിഷയം അല്ല നമുക്ക് നല്ല സാധനം കിട്ടുന്നത് ആണ് എവിടെയാണ് സ്ഥലം എവിടെയാണ് അതെ അതെ അതെ

ഡെലിവറി ഉണ്ടോ കൊടുക്കുന്നുണ്ടോ ഹ ഫ്രീ ഡെലിവറി ആണല്ലേ

ആ ആ ആ ആ അതെ അതെ തേക്ക് തേക്ക് തേക്കിൻ്റെ ആയിക്കോട്ടെ എയ് ആ ഓക്കെ

ഓക്കെ ആധാർ കാർഡ്

ഓക്കെ താങ്ക്യൂ